ആദ്യം കുതിര സവാരിക്ക് വേണ്ടത് ആരോഗ്യ സ്ഥിതി ഓ നല്ല കുതിരയായിരിക്കണം ചെറിയ കുതിരനെ കൊണ്ടൊന്നും വലിയ ആനപോലത്തെ രണ്ട് പേര് കയറിയിരുന്നാൽ എങ്ങനെയാണ് അങ്ങനെയൊന്നും പറ്റില്ല പിന്നെ അതിന് നന്നായിട്ട് ഫുഡ് കൊടുക്കണം പിന്നെ ആ അതിനു കണ്ടിന്യൂസായിട്ട് ഒരാളെ കയറ്റിക്കൊണ്ടിരിക്കാതെ അതിനു കുറച്ച് കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കണം അതിനു വ്യായാമം കൊടുക്കണം പിന്നെ നല്ല ഫുഡ് കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യാ ചെയ്യ് ചെയ്താൽ മുന്നോട്ട് പോവാം കാരണം പിന്നെ നമ്മള് ഒത്തിരി വൈറ്റും ഒത്തിരി പഠിക്കുന്ന ചെറിയ കുട്ടികള് കുതിരേൻ്റെ പുറത്ത് പഠിക്കുന്നവരുണ്ട് ഇല്ലാന്നല്ല ചെറിയ കൊച്ച് ചെറുപ്പം തൊട്ടേ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു കുതിരേനെയും കൊണ്ട് ലാട്ടൊക്കെ കെട്ടി കൊണ്ടുനടക്കുന്ന സ്വന്തം പെറ്റ് നമ്മള് പട്ടിനെയൊക്കെ നോക്കുന്നത് പോലെ നടക്കുന്നു അതേപോലെ നമ്മളതിനെ നന്നായി പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം നന്നായി ഫുഡ് കൊടുക്കണം നന്നായി വെള്ളം കൊടുക്കണം നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കണം നല്ല വൃത്തിയും ശുദ്ധിയൊക്കെ ഇരിക്കണം നമുക്കങ്ങനെ ഒക്കെ ചെയ്താൽ നമ്മളോട് ഇണങ്ങിയിരിക്കണം പിന്നെ കുറേപ്പേരെ നമ്മള് പൈസയ്ക്ക് വേണ്ടി ആരെയും കുതിരപ്പുറത്ത് കയറ്റാതിരിക്കുക